ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങടെ കോളേജിൽ നിന്ന് ഞങ്ങൾ ടൂർ പോയി അത് കർണാടക ഡാൻഡലി പിന്നെ ചിക്കമംഗളൂർ ഊട്ടി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗോവക്കാണ് പോയത് ഫസ്റ്റ് ഞങ്ങൾ പോയത് കർണാടക ഡാൻഡലി എന്ന് പറയുന്ന സ്ഥലമാണ് ഡാൻഡലിയിൽ അവിടെ ഒരു റിവർ റാഫ്റ്റിങ് ഒക്കെ ഉണ്ടായിരുന്നു അത് അത്യാവശ്യം ബോട്ടിങ്ങും പിന്നെ നമ്മുടെ ഈ അത്യാവശ്യം ഒഴുക്കുള്ള വെള്ളത്തിൽ കൂടെ ഒരു ഇതിൽ ബോട്ടിൽ കൂടെ പോകുമല്ലോ ബോട്ട് അല്ല ട്യൂബ് നിറച്ച ഒരു സാധനം കാറ്റ് നിറച്ച ഒരു സാധനം അതൊക്കെ അടിപൊളിയായിരുന്നു റിവർ റാഫ്റ്റിങ് എന്നായിരുന്നു അതിനെ പറയുക എന്ന് തോന്നുന്നു അതൊക്കെ അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ ചിക്കമംഗളൂർ പോയി ചിക്കമംഗളൂർ അടിപൊളിയായിരുന്നു ക്ലൈമറ്റും വ്യൂവും സീനറി ഒക്കെ അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗോവക്ക് വിട്ടു ഗോവയായിരുന്നു ബെസ്റ്റ് നമുക്ക് അറിയാമല്ലോ എല്ലാരെയും ബെസ്റ്റ് യൂത്തമ്മാരുടെ ബെസ്റ്റ് ഗോവയായിരിക്കും ഗോവയിൽ പോയി ബീച്ചിൽ പോയി പാർട്ടി അറ്റൻഡ് ചെയ്തു അടിപൊളിയായിരുന്നു മൊത്തത്തിൽ ഒരു കിടിലൻ ട്രിപ്പ് ആയിരുന്നു അന്ന്